നമുക്ക് സ്വാഭവികമായിട്ടും രാത്രികളിലാണ് നക്ഷത്രത്തെ കാണാറുള്ളത് കാരണം രാവിലെ സൂര്യൻ്റെ വെളിച്ചം പ്രകാശമൊക്കെ കാരണം നമുക്ക് ഇര് സൂര്യ നക്ഷത്രത്തെ കാണാൻ കഴിയുന്നില്ല അതേസമയം രാത്രിയാണെങ്കിൽ സൂര്യനില്ല നമക്ക് അത്കൊണ്ട് തന്നെ രാത്രിയാണ് സ്വാഭാവികായിട്ടും നക്ഷത്രം കാണാൻ സാധിക്കുന്നത് ആ രാത്രി സമയമാണ് നമുക്ക് നക്ഷത്രത്തെ നിരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം ഏതാന്ന് പറഞ്ഞ്ട്ട്ണ്ടങ്കില് വാൽനക്ഷത്രം ഇഷ്ടാണ് അനുഭവംന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൽനക്ഷത്രം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വരും രണ്ട് മണിക്ക് വെരുംന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വാർത്തയും ഒരോര്ത്തര് പറയ്ണതൊക്കെ കേട്ട് കേട്ട് ഞാനങ്ങനെ കാണാൻ വേണ്ടി അത്രേം നേരം ഉറക്കമൊഴിച്ച് നിന്നിട്ടുണ്ട് വാൽനക്ഷത്രം കാണാൻവേണ്ടി ഞാൻ പന്ത്രണ്ട് മണി വരെ നോക്കി അപ്പോൾ പന്ത്രണ്ട് മണിക്കല്ലാ ടൈമ് രണ്ട് മണിക്കാണെന്ന് പറഞ്ഞു രണ്ട് മണി വരെ വൈറ്റ് ചെയ്തു സിനിമയും കണ്ട് അത്പോലെത്തന്നെ ഫോണിലും കളിച്ചിരുന്ന് ടൈം കളഞ്ഞ് രണ്ട് മണിയായപ്പം ഞാന് കാണാൻവേണ്ടി ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ കണ്ടു അത്പോലെത്തന്നെ എൻ്റെ അമ്മേനെം അച്ഛനെം വിളിച്ചെണീപ്പിച്ച് അവർക്കും ഞാൻ കാണിച്ച് കൊടുത്തു അതാണ് ആഹ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവം